ഹലോ ആ അതെ അതെ എങ്ങനെയുള്ള മോഡലാണ് തയ്ക്കാൻ ഓ തയ്ക്കാം പക്ഷേ കൂടുതൽ ഇരിപ്പുണ്ട് എന്നാലും ഡിസൈൻ ഏതാണ് വേണ്ടുന്നത് അത് ഏത് മോഡലാണ് വേണ്ടുന്നത് എന്നൊക്കെ

താമസിക്കും കിട്ടാൻ എന്നാലും ഞായറാഴ്ച നോക്കാം ഇന്ന് കൊണ്ട് വരു നോക്കി അളവൊക്കെ എടുത്ത് അതിലെ അത് നോക്കിയിട്ട് വേറെ ഒരു ആ വേണ്ട വന്നാൽ മതി വന്ന് അളവെടുത്ത് അത് നോക്കി തിങ്കളാഴ്ച ഞായറാഴ്ച എന്തായാലും ആ കൊണ്ട് വരൂ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം നോക്കട്ടെ ഏത് ഡിസൈനാണ് ഞാൻ കാണിച്ച് ആ ഡിസൈൻ അപ്പോൾ അത് വർക്ക് നോക്കിയിട്ട് അത് കുറച്ച് പാടുള്ളതാണ് കുറേ തയ്ക്കാൻ ഒക്കെ ഇരിപ്പുണ്ട് എന്നാലും കൊണ്ട് വരൂ നോക്കിയിട്ട് ഞാൻ അത് തയ്ച്ച് പാടാം ആ അതൊക്കെ ഭയങ്കര പാടാ തയ്ച്ച് കിട്ടാൻ തന്നെ റേറ്റും കൂടുതലായിരിക്കും കൂടുതൽ ആ

പരമാവധി ഞാൻ ശ്രമിക്കാം എന്നാലും കൊണ്ട് വരൂ ഞാൻ നോക്കി അളവെടുത്തിട്ട് ഞാൻ ഡിസൈൻ കാണിക്കാം ഉണ്ട് അതിൻ്റെ ഡിസൈന് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് അത് നോക്കി കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്ന ഏതാണ് വച്ചാൽ തയ്ച്ചിട്ട് അത് പിന്നെ ഈ കഴുത്ത് തന്നെ റൗണ്ടല്ലാതെ ചതുരം പോലെ ഉള്ളതേ ഉള്ളൂ പിന്നെ ഈ വി മാതിരി ഉള്ള ഡിസൈനുണ്ട് പിന്നെ അതിൽ ഓരോന്നൊക്കെ ഈ കല്ലൊക്കെ വച്ചുള്ള ഡിസൈനൊക്കെ തയ്ച്ച് ആ ആ ആ ആ അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ കൂടുതൽ പൈസ എക്സ്ട്രാ പൈസ തരേണ്ടി വരും ഓക്കെ ആ തരാം തരാം പൈസ തരാം

ആ ഓക്കെ ആ എല്ലാം ശരിയാക്കി തരാം ആ വന്നാൽ മതി വന്നാൽ മതി എപ്പോഴാണ് വരുന്നതെന്ന് വച്ചാൽ ഒന്ന് വിളിച്ചിട്ട് വരണം

ആ ആ നോക്കാം ഒന്നാം തീയതി ഉറപ്പായിട്ടും തരും ഒന്ന് നോക്കി അതിൻ്റെ ഡിസൈന് കൂടെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നോക്കി തയ്ച്ച് ഞാൻ അത് റെഡിയാക്കി തരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഇച്ചിരി പൈസയും കൂടെ കൂടുതലായിരിക്കും ആ ആ തുണിയും കൂടെ അത് തയ്ച്ച് തയ്ച്ചത് വെട്ടി എടുത്ത് തയ്ക്കാൻ ഇച്ചിരി പാടുള്ള തുണിയാണ് അത് അത് പിന്നെ അത് കൊണ്ട് അതിൻ്റെ റേറ്റ് ആ കൂടിയതാണ് ആ കൊണ്ടു ആ വന്നാൽ മതി ഓക്കെ